സർ എൻ്റെ പേര് സജന എന്നാണ് ഞാൻ ഒറ്റപ്പാലത്ത് മറേൻ പ്ലാസ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൽ നമുക്കൊരു ഫാൻസി ഷോപ്പ് നടത്തുകയാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് സാവരിയ എന്നാണ് ഷോപ്പിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പർ സി ഒ എഫ് യു അഞ്ച് നാല് ആറ് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് ആറ് നാല് എട്ട് ആണ്